ആ നമ്മുടെ ബൈക്ക് നല്ല എന്താ പറയുക സൂക്ഷിക്കണ രീതി അത് എന്താ പറയുക ബൈക്കിനെ നമ്മൾ എത്രത്തോട് സ്നേഹിയ്ക്കുന്നൊ അവര് അത്രയും അതിനെ നല്ല രീതിയ്ക്ക് നോക്കും എന്നൊള്ളൊരു ഫീലിങ്ങാണ്

കൃത്യസമയത്ത് സർവീസിങ്ങിന് കൊടുക്കുക അതിൻ്റെ ടയറില് കറക്റ്റ് ആയിട്ട് റെഗുലർ പീരീഡ് ഓഫ് ടൈമില് കാറ്റ് കാര്യങ്ങളടിച്ച് അത് റെഡി ആക്കുക പിന്നെ ആഴ്ചയ്ക്കൊരു ദിവസം എങ്കിലും വണ്ടി കഴുകാനുള്ള ഒരു സംവിധാനം ചെയ്യ പിന്നെ അതിൻ്റെ ടയറ് കൃത്യമായിട്ട് ഇപ്പൊ മാറാനുള്ള സമയം ആണെങ്കിൽ മാറ്റ്ക ഷോക്ക് അബ്സോർബർ മെയിന്റനൻസ് ചെയ്യ്ക അങ്ങനെ എല്ലാ കാര്യങ്ങളും പിന്നെ ഒരുപാട് റഫ് ആയിട്ട് പൂവാണ്ട് കൃത്യമായിട്ട് രീതിയില് ഉപയോഗിയ്ക്കാൻ നോക്കുക അതായത് എന്താ പറയുക നമ്മളീ കേറ്റങ്ങളിലക്കെ ഇട്ട് വലിപ്പിക്കുന്ന കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ഒഴിവാക്ക നല്ല രീതിയ്ക്ക് അതായത് നമ്മടെ എത്രത്തോളം നമ്മള് നല്ല രീതീല് നമ്മടെ വണ്ടിനെ നോക്കുന്നൊ അത്രത്തോളം നമക്ക് വണ്ടി നമ്മളെ തിരിച്ചും അതേപോലൊരു എന്താ പറയ നമക്ക് ഹെല്പ് ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് നമ്മുക്ക് പറയാൻ പറ്റും വണ്ടി ഇപ്പം സാധാരണ ആൾക്കാര് പറയുന്ന പോലെ മെഷിനും കാര്യങ്ങളക്കെ ആണങ്കിലും നമ്മൾ എത്രത്തോളം അതിനെ നോക്കുന്നൊ അത് അത്രത്തോളം നമ്മളെ കെയർ ചെയ്യും അപ്പൊ നമക്ക് ദീർത്ത് ദീർഘ ദൂര യാത്ര ഒക്കെ ചെയ്യുമ്പൊ വണ്ടി നല്ല കണ്ടീഷൻ ആണെന്ന് പറയുമ്പൊ പക്ക ആയിട്ട് പോയിട്ട് വരാനുള്ള ഒരു സംതൃപ്തി ഉണ്ടാവും അതുപോലെ മൈലേജും കാര്യങ്ങളും ഇപ്പം നമ്മള് എത്രത്തോളം നമ്മടെ വണ്ടിനെ മെയിന്റനൻസ് ചെയ്യുന്നൊ അതുപോലെ ആയ്രിക്കും വണ്ടീടെ മൈലേജ് കാര്യങ്ങള് ഇപ്പൊ കമ്പനി ഒരു തൊണ്ണൂറ് പറയുവാണെങ്കില് നമുക്കൊരു എൺപത് എൺപത്തഞ്ച് ഒക്കെ കിട്ടണം എന്ന് പറഞ്ഞ് കഴിഞ്ഞാ വണ്ടി നമ്മളത്രയും വൃത്തി ആയിട്ട് നമ്മള് കൃത്യമായിട്ട് എന്താ പറയ അതിൻ്റെ മെയിന്റനൻസും കാര്യങ്ങളക്കെ നോക്കിയാ മാത്രമേ നമുക്ക് അതിൻ്റെ ആ ഒരു മൈലേജും കാര്യങ്ങളക്കെ കിട്ടൊള്ളു പിന്നെ നമ്മള് മാക്സിമം നമക്ക് സിങ്കിൾ യൂസ് ആണ് വണ്ടിയ്ക്ക് ബെറ്റർ ഓപ്ഷൻ പിന്നെ നമ്മൾ അത്രയും നന്നായിട്ട് ഉപയോഗിയ്ക്കും അല്ലെങ്കി കേട് വരത്തില്ല അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് മാത്രം നമ്മള് വണ്ടി കൊടുക്കാൻ നോക്കുക